ഗുണത്തെക്കാളേറെ ദോഷങ്ങളുണ്ടാക്കുന്ന ഒന്നാണ് ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ഉപകാരപ്രദം എന്നു തോന്നുന്ന കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ കുട്ടികൾക്ക് അവർ വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു ത്വര ഒരു പ്രായത്തിലുള്ള കുട്ടികളിൽ കാണുന്നുണ്ട് പിന്നെ ഇന്നത്തെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചു വിവര സാങ്കേതിക വിദ്യയുടെ ഗിഫ്റ്റാണല്ലൊ മൊബൈൽ അതുപയോഗിച്ചു പിന്നെ സെർച്ച് ചെയ്ത് ഓരോന്നു കാണുകയും അത് അവരുടെ തലച്ചോറിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയും ഇതിനൊക്കെ അഡിക്റ്റായി പോകുകയും ചെയ്യുന്നു പിന്നെ ചില രക്ഷകർത്താക്കളൊക്കെ തന്നെയാണ് കുസൃതി കൂടുതലുള്ള കുട്ടികളെയൊക്കെ അടക്കി ഇരുത്താനായിട്ട് മൊബൈൽ കൊടുത്തിട്ട് അവരുടെ ജോലികളൊക്കെ ചെയ്യാറുണ്ട് അത് കുട്ടികളെ പഠനത്തിൽ നിന്ന് പിൻതിരിപ്പിക്കും ആരോഗ്യപരമായിട്ട് അതു വളരെ ദോഷം ചെയ്യും കായിക ശക്തിയുള്ള ജോലികളൊന്നും ഇന്നത്തെ കുട്ടികൾക്കു ചെയ്യാൻ അറിഞ്ഞു കൂടാത്തത് ഈ സാങ്കേതിക വിദ്യയുടെ മിത വികസനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഒരുപാട് ദോഷങ്ങൾ ഇതുവഴി ഉണ്ടാകും